ഞാൻ ഇന്നലെ ഓൺലൈനിലായിട്ട് ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വന്നിട്ട് ഒരു അഞ്ഞൂറ്റി സം തിങ് റുപ്പീസ് ഉള്ളൊരു സാരി ആയിരുന്നു ഞാൻ വാങ്ങിച്ചത് അവർ ഡിസ്പ്ലേയില് കാണിച്ചിട്ടുണ്ടായിരുന്നത് നിറയെ ത്രഡ് വർക്കൊക്കെ വരുന്നൊരു നല്ല പിങ്ക് ഷെയ്ടുള്ളൊരു സാരി ആയിരുന്നു കാണിച്ചിരുന്നത് ഞാനത് കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു ലൈറ്റ് കളറായിട്ടുള്ളൊരു പിങ്ക് ആയിരുന്നു പിന്നെ അതിൽ വന്നിട്ട് ത്രെഡ് വർക്കൊക്കെ വളരെ ലൈറ്റും ആണ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലും ആയിരുന്നു ശരിക്കും കിട്ടിയപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി കാരണം അത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ട് വാങ്ങിയ ഒരു ആ ഒരു മെറ്റീരിയൽ ആ ഒരു മോഡലൊക്കെ കണ്ടപ്പോൾ അത്രയും ഇൻട്രസ്റ്റഡായിട്ടായിരുന്നു അത് വാ ഓർഡർ കൊടുത്തതും കയ്യിൽ കിട്ടിയപ്പോൾ ആകെ അത് എന്താ പറയുക നമുക്കങ്ങനെ ഫുള്ള് മൈൻ്റേ അങ്ങോട്ട് പോകുന്ന രീതിയിലായിപ്പോയി അത്രയും മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ ഒരു ഡെലിവറിയിൽ നിന്ന് കിട്ടിയത് ഇതുവരെ നമ്മൾ പർച്ചേസ് ചെയ്തതിൽ ഇങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമായിരുന്നു ഇത്രയും മോശമായിട്ടുള്ളൊരു ഇത് കിട്ടുന്നത്